സാങ്കേതികവിദ്യയെ കുറിച്ചും കമ്പ്യൂട്ടറിനെ കുറിച്ചും പഠിക്കാൻ എന്തോ എത്രമാത്രം കോഴ്സുകളുണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എന്നാലും സ്കൂളുകളില് കമ്പ്യൂട്ടറുകളെ കുറിച്ച് ഇപ്പം കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നുണ്ട് അത് കുഞ്ഞുങ്ങള്ക്ക് കുഞ്ഞുങ്ങള്ക്ക് അതിന്റെ കമ്പ്യൂട്ടറിന്റെ ഒരു ബേസിക്കെന്നുള്ള രീതിയിൽ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങള് പഠിക്കുന്നുണ്ട് പിന്നെ കമ്പ്യൂട്ടര് കോഴ്സുകൾ സാങ്കേതികവിദ്യയെ കുറിച്ച് പഠിക്കാനാണെങ്കില് അനേകം കോഴ്സുകളുണ്ട് ചെറിയ തലത്തില് ചെറിയ ചെറിയ ഡിപ്ലോമ കോഴ്സ്കളുണ്ട് പിന്നെ അതിന്റെ ഗ്രാജുവേറ്റായിട്ടും കോഴ്സ്കളുണ്ട് അങ്ങനെ കുഞ്ഞുങ്ങള്ക്ക് പഠിക്കുന്ന ആ ലെവലിലുള്ള ചെറിയ ചെറിയ എമ്മെസ്സോഫീസ് പോലെയുള്ള ചെറിയ ചെറിയ കോഴ്സ്കളുണ്ട് അങ്ങനെ അതെ ഒത്തിരിയേറെ സാങ്കേതിക വിദ്യകള് പഠിക്കാന് വേണ്ടി ഒത്തിരി പ്രൊഫഷണല് കോഴ്സ്കളും പ്രൊഫഷണല് കോളേജുകളും ഇപ്പോള് സാങ്കേതിക വിദ്യയെ കുറിച്ച് പഠിക്കാന് വേണ്ടി പുറത്ത് നമ്മുടെ നാട്ടിലും പുറത്തും വിദേശത്തുമായി അനേകായിരം കോഴ്സ്കള് നമ്മുടെ ചുറ്റുവട്ടവും ഉണ്ട് സ്കൂളുകളില് കമ്പ്യൂട്ടറുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്ന കുഞ്ഞ് ക്ലാസുകള് മുതലേ ഇപ്പം അവര്ക്ക് അതിനെ കുറിച്ച് ക്ലാസുകള് കൊടുക്കുകയും അത് ലാബുകളില് അവര്ക്ക് അതിന്റെ പ്രാക്റ്റിക്കല് പ്രാക്റ്റിക്കല് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങൾ സ്വാഭാവികമായിട്ട് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട് അതിനാല് അവർ അതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചാണ് വരുന്നത് അത് കഴിഞ്ഞു കുഞ്ഞുങ്ങള് ഡിഗ്രി തലത്തിലൊക്കെ വരുമ്പോള് തന്നെ അവര്ക്ക് സാങ്കേതികവിദ്യ പഠിക്കാനായിട്ട് അവര്ക്ക് ഒരു ഇപ്പോളത്തെ സ്മാര്ട്ട് ഫോണുകളൊക്കെ ഉപയോഗിച്ചു തന്നെ കുഞ്ഞുങ്ങള്ക്ക് സാധാരണ ഇതെല്ലാം പഠിക്കാനായിട്ട് അവസരങ്ങള് കിട്ടാറുണ്ട് പിന്നെ ഇതിനെക്കുറി ഡിഗ്രി കോഴ്സ്കളും വണ് ഇയര് കോഴ്സുകളും ധാരാളം ഇപ്പോൾ നമ്മൾക്ക് ഐ റ്റി ഐ വഴി ആയാലും പ്രൊഫഷണല് കോഴ്സോ കോളേജുകൾ വഴി ആയാലും നമുക്ക് പഠിക്കാന് സാധിക്കുന്നുണ്ട് അതുവഴി കമ്പ്യൂട്ടറുളിലിപ്പോള് എല്ലാവരും പഠിക്കുന്നത് കൊണ്ട് തന്നെ ഈ വരുന്ന ഒരു ജനറേഷന് ഇപ്പോൾ കമ്പ്യൂട്ടറ് അറിയത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല എല്ലാ കുഞ്ഞുങ്ങള്ക്കും ഒരു ബേസിക് നോളജ് കമ്പ്യൂട്ടറുകള് കമ്പ്യൂട്ടറുകളെ കുറിച്ച് ഉണ്ട് സാങ്കേതികവിദ്യകളെ കുറിച്ചും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചും ഇപ്പോൾ വരുന്ന തലമുറയ്ക്ക് നന്നായി അതിനെ കുറിച്ച് ഒരു അവബോധം ഉള്ളതിനാല് വരും തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കാനും ഇവര്ക്ക് സാധിക്കുന്നുണ്ട് ഈ കുഞ്ഞുങ്ങള് ഇത് ഇപ്പോഴുള്ള എല്ലാ ഒരു ഈ ഈ തലമുറയില് ജീവിക്കുന്ന കുഞ്ഞുങ്ങള്ക്ക് അല്ലെങ്കില് അമ്മമാര്ക്ക് ജോലി ചെയ്യുന്നവര്ക്ക് എല്ലാ സ്ഥപനങ്ങളിലും ഇപ്പോൾ ഏകദേശം കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു മാര്ഗത്തില് കൂടി മാത്രമേ ഇപ്പോള് നമുക്ക് എന്ത് കാര്യങ്ങള് ഇപ്പോള് നടത്താന് പറ്റത്തുള്ളു അത് നമ്മുടെ ആവശ്യമായ ഒരു പഞ്ചായത്ത്കളിലോ പോയി ഒരു ആവശ്യം നേടണമെങ്കില് പോലും നമ്മുടെ സാങ്കേതിക വിദ്യകളെ ആശ്രയിച്ചെ പറ്റത്തുള്ളു കമ്പ്യൂട്ടറുകളെ ആശ്രയിച്ചെ പറ്റത്തുള്ളു ഇപ്പോൾ എഴുതി ബുക്കുകള് സൂക്ഷിക്കുന്ന ഒരു രീതിയില്ല അതിനാല് നമ്മള് കൂടുതല് കമ്പ്യൂട്ടറുക ളും അതിന്റെ സാങ്കേതികവിദ്യകളുമാണ് ഉപപയോഗിക്കുന്നത് അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആള്ക്കാരും ഇപ്പോള് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എന്റെ ഒരറിവ് അതിനാല് ഇതിനെ കുറിച്ച് കൂടുതൽ അവസരങ്ങൾ ഉള്ളവർ പഠിക്കുന്നുണ്ട് അതിനേ കുറിച്ച് അവസരങ്ങൾ ഏറെക്കുറെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഒരു തരത്തിൽ അല്ലെങ്കില് വേറെ ഒരു തരത്തില് എല്ലാവരും ഇപ്പം കൈകാര്യം ചെയ്യുന്നുണ്ട് സാങ്കേതികവിദ്യ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇനി വരും തലമുറ ഇതിനെയൊക്കെ നല്ല രീതിയില് പഠിച്ചു വരട്ടേ എന്ന് ആഗ്രഹിക്കുന്നു